ഹലോ ക്വീൻ ബ്യൂട്ടി പാർലർ ആ എവിടുന്നാണ് ഓ നമുക്ക് അപ്പോയിൻമെൻറ്റ് എന്തിതിലേക്കാണ് വേണ്ടത് ഫീറ്റിൻ്റെയാണോ നെയിൽ ആ മതി മസാജിങ്ങ് ഉണ്ട് നമുക്ക് അതുപോലെ നെയിൽ പെയിൻറ്റിങ്ങ് ഉണ്ട് ആ അങ്ങനെ വെറൈറ്റി ഓഫ് ഇത് നമുക്ക് ചെയ്യാം എന്താണ് ആൾ പ്രിഫെർ ചെയ്യുന്നത് ആ ആ ക്ലീനിങ്ങ് പ്ലസ് മസാജ് ആണ് നമ്മൾ ഇവിടെ ഓഫർ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എറൗണ്ട് ഒരു ടു തൗസൻഡ് വരും അതിന് മാത്രമായിട്ട് ആ ടു തൗസൻഡ് ആണ് നമുക്ക് ക്ലീനിങ്ങ് പ്ലസ് മസാജിന് വരുന്നത് നെയിൽ ആർട്ട് വരുമ്പോൾ നിങ്ങളുടെ ഡിസൈനിനനുസരിച്ചായിരിക്കും നമുക്ക് അതിന് കോസ്റ്റ് ചെയ്യുക ഉം അതെ അതെ ആ ആണോ ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എറൗണ്ട് ഒരു നിങ്ങൾ ഏതാണ് ഡിസൈൻ നമുക്ക് തീരുമാനിക്കുന്നത് അറിയില്ലല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ ഒരു വീക്കിന് എന്നത്തേക്കാണ് ആ നാളത്തേക്ക് നമ്മൾ ഓൾറെഡി ടൈറ്റ് ഷെഡ്യൂൾ ആണ് അപ്പോൾ നാളത്തേക്ക് പറ്റില്ല മാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ മാമിന് എപ്പോഴാണ് ഒഴിവ് ഓ ഫൈവ് ഒ ക്ലോക്ക് ആ ആ ഓക്കെ ആ ഞങ്ങളുടെ ക്ലോസിംഗ് ടൈം വരുന്നത് ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോഴേക്കേ നമ്മൾ ക്ലോസ് ചെയ്യുള്ളൂ ആണ് ആ അതെ അതെ ഒരു എറൗണ്ട് ഒരു വൺ അവറിൻറെ ഉള്ളിൽ തീരും ആ അതെ അതെ വൺ അവറിൻറെ ഉള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും മസാജിങ്ങ് വേണ്ടല്ലോ

ആ നാളെ പറ്റാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു പ്രിഫെർ ചെയ്യാൻ പറ്റുന്നത് സൺഡേ പറ്റുമോ മാമിന് അപ്പോൾ മൺഡേ ഇതേ ടൈമിന് നമുക്ക് ഓ ഫൈവ് ആവുമ്പോൾ കുഴപ്പമില്ല മാമിന് എവിടുന്നാണ് ആരെങ്കിലും പ്രിഫെർ ചെയ്തതാണോ ആ മാം ഇവിടെ വന്നതിനൊരു ഫീഡ്ബാക്ക് ഇട്ടോളൂ കേട്ടോ താങ്ക് യൂ മാം അപ്പോൾ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം ഞങ്ങളുടെ ആപ്പ് ഉണ്ട് ക്വീൻ ബാട്ട് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട് അതില് ജസ്റ്റ് കയറിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അതിലൊന്ന് അപ്പോയിൻമെൻറ് ഒന്ന് ബുക്ക് ചെയ്തിട്ടോളൂ അപ്പോൾ വേറെ ആരെങ്കിലും അപ്പോയിൻമെൻറ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഡേറ്റിൻ്റെ കാര്യത്തിൽ ചേഞ്ച് വരുത്തുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്തിട്ടോളൂ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്താം അല്ലെങ്കിൽ ക്യാഷ് കയ്യിലങ്ങ് തന്നതുകൊണ്ടും കുഴപ്പമില്ല ആ ഓക്കെ മാം യൂ ആർ ഓൾവേസ് വെൽക്കം മാം